ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതോടെ എല്ലാവരും ഫോണിലാണ് കൂടുതൽ കാര്യങ്ങൾക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് പണ്ടുള്ള കാലങ്ങളിലൊക്കെ പത്രം ആയിരുന്നു അതിപ്പം മലയാളത്തിലുള്ള പത്രം എല്ലാവരും വായിക്കുമായിരുന്നു ഇപ്പം മലയാളത്തിലുള്ള പത്രങ്ങളെ നോവൽസ് ധാരാളം വായിക്കുന്നത് കൊണ്ട് ഭാഷയ്ക്ക് നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു പണ്ടൊക്കെ പിന്നെ ബി ഏ മലയാളം മലയാളം ബിരുദം ബിരുദാനന്തര ബിരുദം ബിരുദം ഒക്കെ മലയാളത്തിൽ എല്ലാവരും എടുക്കുമായിരുന്നു ഇപ്പോൾ പൊതുവേ പ്രാദേശിക ഭാഷകളോട് മനുഷ്യർക്ക് താൽപ്പര്യമില്ല എല്ലാവരും പുറം നാടുകളിലൊക്കെ ജോലി സാധ്യതകൾക്ക് വേണ്ടി പുറം പുറത്തുള്ള ഭാഷകൾ പഠിക്കുകയും ഇംഗ്ലീഷ് കൂടാതെ ഫ്രഞ്ച് ജർമൻ അതൊക്കെ പഠിച്ച് വെളിയിൽ സെറ്റിൽ ആകുക വെളിയിൽ താമസമാക്കാനായിട്ട് താൽപ്പര്യപ്പെടുന്നത് കൊണ്ട് പ്രാദേശിക ഭാഷകൾക്ക് ഒരു പ്രാധാന്യം ആരും നൽകുന്നില്ല സ്കൂളുകളിലാണേലും പണ്ടുള്ള കാലങ്ങളിൽ മലയാളം പ്രാദേശിക മീഡിയങ്ങളിൽ എല്ലാവരും പഠിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ ഭാവി നോക്കി ഭാവിയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോവാനുള്ള താൽപ്പര്യങ്ങളുള്ളത് കൊണ്ട് എല്ലാവരും തന്നെ ഇംഗ്ലീഷ് മീഡിയങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയ തലമുറകൾക്ക് ഭാഷ മലയാളം ഒന്നു ഒരു പ്രാധാന്യമായിട്ട് ആരും കരുതുന്നില്ലാത്തത് കൊണ്ട് വളരെ പുറകോട്ടാണ് ഒത്തിരി മാറ്റങ്ങൾ മലയാളം ഉപയോഗിക്കും മലയാളം ഭാഷ സംസാരിക്കുമ്പോൾ തന്നെ അത് നല്ല ശുദ്ധമായ ഭാഷ ഉപയോഗിക്കാൻ പലർക്കും അറിയത്തില്ല ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ കൂടുതലും ഈ ഇംഗ്ലീഷും മറ്റുള്ള ഭാഷകളും ഉൾപ്പെടുത്തി കലർത്തി ഒക്കെയാണ് എല്ലാവരും സംസാരിക്കുന്നത് പിന്നേ വായനകൾ എല്ലാ ഫോണിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ അവനവൻ്റെ ഫോണിൽ തന്നെ എല്ലാ ലഭിക്കുന്നത് കൊണ്ട് പിന്നേ പ്രാദേശിക ഭാഷകൾ അത് മലയാളം തീരെ മനുഷ്യർ ഉപയോഗിക്കുന്നില്ല പത്രങ്ങൾ വായിക്കുന്നില്ല ടിവി കാണുന്നില്ല അപ്പം വാർത്തകളൊക്കെ അപ്പോഴപ്പോൾ അറിയുന്നത് കൊണ്ട് തന്നെ പലരും ഇതിനുവേണ്ടി ശ്രമിക്കാൻ ശ്രമിക്കുന്നില്ല വായന നോവൽസ് ഒക്കെ ഒരു കാലഘട്ടത്തിൽ നോവൽസ് ദൈനംദിന പ്രതിവാര പ്രതിവാര പ്രതിവാര മാസികകൾ കുട്ടികളാണെങ്കിൽ ചിത്രകഥകൾ ഇതൊക്കെ വായിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ശുദ്ധമായ ഭാഷ എല്ലാവരും സംസാരിക്കുമെങ്കിലും ഈ കാലഘട്ടത്തിലേ മലയാളത്തിലെ പല വാക്കുകളും ഇവിടെ അർത്ഥമോ അത് ഉപയോഗിക്കുന്ന രീതിയോ ശൈലിയോ ഒന്നും തന്നെ അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്